അക്കൗണ്ട് തുടങ്ങാനായിട്ട് കുഞ്ഞിൻ്റെ ജനന രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടോന്നാണ് നോക്കേണ്ടത് ആദ്യം അത് ജനനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോന്ന് നമ്മൾ ഒഫീഷ്യലായിട്ട് നോക്കുക എന്നിട്ടത് അത് ചെയ്യേണ്ടത് നമ്മുടെ മുനിസിപ്പാലിറ്റിയാണ് അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ട് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ചെല്ലാൻ പറ്റും അങ്ങനെ നമുക്ക് കുഞ്ഞിന് വേണ്ടി ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇൻകേസ് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പരാതി പരിഹാര സെല്ലുണ്ടാകും അവിടെ അന്വേഷിച്ചാൽ അവര് കൂടുതൽ കാര്യങ്ങള് ഇതിനെപ്പറ്റി നമുക്ക് പറഞ്ഞുതരും